ആ പറയൂ ഞങ്ങൾ റോയൽ ബ്രദേഴ്സിൽ നിന്നാണ് വിളിക്കുന്നത് മാനേജർ ആണ് ആ യെസ് മാം എന്നത്തേക്കാണ് ആ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആ ഓക്കെ ആ മാഡം രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ ടൂവീലേഴ്സിലുളള എങ്ങനത്തെയാണ് ഐറ്റംസ് നോക്കുന്നത് നിങ്ങൾ ഓഫ്റോഡ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഹിമാലയൻ അവൈലബിൾ ആണ് അതുപോലെത്തന്നെ നിങ്ങൾക്ക് നോർമലായിട്ടാണ് പോകാനാണെങ്കിൽ നമുക്ക് സ്കൂട്ടർ ആണെങ്കിൽ അത് അവൈലബിൾ ഉണ്ട് പിന്നെ എല്ലാ മോഡലും വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് ഡ്യൂക്ക് ആർ സി ലൈക്ക് സ്പ്ലെൻഡർ പൾസർ അങ്ങനത്തെ ഒരുപാട് വെഹിക്കിൾസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളെങ്ങനത്തെയാ നോക്കുന്നതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചു സെറ്റാക്കിത്തരാൻ പറ്റും മാഡം ആ ഓക്കെ ക്യാഷ് ആ വണ്ടിയുടെ കാര്യമെന്നു വച്ചിട്ടുണ്ടെങ്കിൽ മാഡം വണ്ടിക്കനുസരിച്ചാണ് നമ്മൾ റെന്റിൻ്റെ ക്യാഷ് ഇപ്പോൾ സ്കൂട്ടിക്കാണ് ഏറ്റവും ലെവൽ കുറവ് ടൂ തൗസന്റ് റുപ്പീസ് നമ്മൾ വൺഡേയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെത്തന്നെ ടെൻ ഡേയ്ക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളതിന്റേതായ ഡിസ്കൗണ്ട്സിൽ കൊടുക്കും അതുപോലെത്തന്നെ ഓരോ വണ്ടിക്കനുസരിച്ചാണതിന്റെ റെന്റ് ക്യാഷ് വരുന്നത് ഹിമാലയനിൽ ഹിമാലയൻ നമ്മൾ ത്രീ തൗസന്റിനാണു കൊടുക്കുന്നത് നിങ്ങൾക്കൊരു ഡേയ്ക്കാണെങ്കിൽ ത്രീ തൗസന്റിന് തരും അതുപോലെത്തന്നെ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഒരു പത്തു ഡേയ്സിനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു അതിന്റേതായ ഡിസ്കൗണ്ട്സിൽ തരും മാഡം വണ്ടീൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസുണ്ടെങ്കിൽ മാഡം അതു നമ്മൾ തന്നെ റെഡിയാക്കും നമ്മുടെ കമ്പനി തന്നെ റെഡിയാക്കിത്തരും അതുപോലെത്തന്നെ ആക്സിഡന്റ് ആവുകയോ ഈ അങ്ങനെയാണെങ്കിൽ ആക്സിഡന്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റാണെങ്കിൽ അതു നിങ്ങൾ തന്നെ റിപ്പയർ ചെയ്തുതരണം മാഡം പകുതി ക്യാഷ് നമ്മളിടും ബാക്കി പകുതി നിങ്ങളിടേണ്ടി വരും അതുപോലെത്തന്നെ നിങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വച്ചു വണ്ടി എന്തെങ്കിലും കംപ്ലൈന്റാവുകയാണെങ്കിൽ നമ്മളപ്പോൾ തന്നെ വേറെ വണ്ടി അറേഞ്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുത്തരും മാഡം പെട്രോളിൻ്റെ കാര്യം വരുന്നതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഒരു ഡേയ്ക്കാണ് നിങ്ങൾ വണ്ടി പിന്നെ എടുക്കുന്നതെങ്കിൽ അഞ്ഞൂറു രൂപയ്ക്ക് നമ്മളടിച്ചു തരും ബാക്കി നിങ്ങൾ കൈയ്യിൽ നിന്നെടുത്തടക്കേണ്ടിവരും അതുപോലെത്തന്നെ ഒരു ഫൈവ് ടു ടെൻ ഡേയ്സിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ടു തൗസന്റ് റുപ്പീസിനു നമ്മളടിച്ചുതരും ബാക്കി നിങ്ങൾ ചെയ്യേണ്ടിവരും മാഡം അപ്പോൾ നിങ്ങൾ വരുന്നതെന്നാണെന്നു വച്ചാൽ നോക്കിയിട്ട് വിളിച്ചാൾ നമ്മൾ സെറ്റ് അന്നത്തേക്ക് അറേഞ്ച് ചെയ്തുതരും വരുന്നതിൻ്റെയൊരു ഒരു രണ്ടുദിവസം മുമ്പെങ്കിലും നിങ്ങൾ വിളിച്ചു ബുക്കുചെയ്യണം മാഡം ആ ബുക്ക് ചെയ്തിട്ട് എവിടെയ്ക്കാണ് എത്തിച്ചു തരേണ്ടതെന്നു വച്ചാൽ അവിടേക്ക് നമ്മളെത്തിച്ചുതരും അല്ലെങ്കിൾ നിങ്ങൾ ഷോപ്പിലേക്ക് വന്നെടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി മാഡം ഒരുദിവസം ഒരു ദിവസം മുൻപ് നമ്മുടെ സൈറ്റ് ഉണ്ട് അതിൽ കയറി ബുക്ക് ചെയ്താൽ മതി മാഡം ഓക്കെ എന്നാൽ നോക്കിയിട്ട് വിളിക്ക് മാഡം ശരിയെന്നാൽ ആ ഓക്കെ ഓക്കെ